ഓരോ വർഷം ആരംഭിക്കുമ്പോൾ പലയിടത്തു ചെന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ കടകളിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നു അല്ല കലണ്ടർ കിട്ടുന്നു അതുപോലെ ബാങ്കിൽ നിന്ന് കലണ്ടർ കിട്ടുന്നു പല മിൽമകളുടെ ഒക്കെ ഏജൻസികളെന്നും ഓഫീസുകളിൽ നിന്നൊക്കെ കലണ്ടർ കിട്ടുന്നു അതൊക്കെ നമ്മൾ ആദ്യം കിട്ടുന്നത് അത്രയും മാത്രം വാങ്ങി ആ ചുമരിൽ തൂക്കാനായിട്ട് ഓരോ മുറികളിൽ അല്ലെങ്കിൽ ഹാളിൽ അല്ലെങ്കിൽ പാല് മേടിക്കുന്ന ഇപ്പം കുറിച്ച് വെക്കാനായിട്ട് അല്ലെങ്കിൽ പത്രം വരുന്നത് കുറിച്ചു വെക്കാൻ അങ്ങനെയൊക്കെ വിധ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കലണ്ടറുകൾ ശേഖരിക്കുന്നുണ്ട് അതു പോലെ പ്രതിമാസം കലണ്ടർ പ്രതിദിന ധ ഷീറ്റ് ടേ ടേബിൾ ടോപ്പ് കലണ്ടർ അങ്ങനെ ആ വ്യത്യസ്ത തര കലണ്ടറുകൾ കണ്ടിട്ടുമുണ്ട് ഈ ഈശോ പടമുള്ള കൂടുതൽ കലണ്ടറുകൾ അതായത് സ്വാമി ആരാധനാമൂർത്തികളുടെയൊക്കെ പടമുള്ള കലണ്ടറുകളെന്നു വെച്ചാൽ അത് ശേഖരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അത് വീട്ടിൽ തൂക്കിയിടുമ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട് അപ്പം എന്തൊക്കെ എന്നു വെച്ചാൽ എന്നു പറഞ്ഞാൽ സംഘടനയിലൊക്കെ നല്ല നല്ല കലണ്ടർ കിട്ടുമ്പോൾ അതിനൊക്കെ പൈസ കൊടുത്തു മേടിക്കും എല്ലാവരും കാരണം അതിൻറ്റകത്ത് നല്ലൊരീശോയുടേ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെയൊക്കെ പടം ഉണ്ടാകും അതുപോലെ തന്നെ പല വീടുകളിലും ചെന്നു കഴിയുമ്പം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് അതു കൊണ്ടു തന്നെ ഹിന്ദു വീടുകളിലൊക്കെ ചെന്നു കഴിയുമ്പോൾ ഈ ശ്രീ നാരായണ ഗുരുവിൻ്റെ അയ്യപ്പൻ്റെയൊക്കെ കലണ്ടറുകൾ അതിൻ്റെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അത് കൂടുതൽ ആളുകൾ എടുത്ത് വെക്കാനായിട്ട് താല്പര്യം കാണിക്കുന്ന ഈ രൂപങ്ങളെയൊക്കെ വന്ദിക്കുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണിത് തോന്നുന്നത് കാരണം ഇതിനെയെല്ലാം ആരെ ചവിട്ടിക്കളയാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം അതൊക്കെ അവർ ഒരാകർഷകമായ രീതിയിലാണത് അനുഭവപ്പെടുന്നു വെന്നത് അതു കൊണ്ടു തന്നെ അവരതെല്ലാം സൂക്ഷിച്ച് വെക്കുന്നുണ്ട് പിന്നെ എന്നാ ഈ ഇത്തരം ഈശോ പടങ്ങളൊക്കെയുള്ള കലണ്ടറുകൾ കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചുലത്തുന്നതിനൊരു കാരണം തന്നെ അവരുടെ ഭക്തിയുടെ ഒരടിസ്ഥാനത്തിലേക്ക് ചിലത് അതൊന്നു വീട്ടിൽ കയറ്റാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല ചിലരാണത് അത് ആഗ്രഹിക്കുന്നുള്ളൂ